ഹലോ ആ ഇത് ലിറ്റിൽ ഫ്ലവർ സ്കൂളാണോ ആ അ പ്രിൻസിപ്പൽ സാറാണോ ആ ഹ സാറേ ഞാൻ ഫോർ ബിയിലുള്ള ഏദൻ്റെ മദറായിരുന്നേ ആ അ അ ഞാന് സാറ് തിരക്കാണോ ആ ശരി ശരി ഞാന് ഇപ്പം അവൻ്റെ അവനെങ്ങനുണ്ട് സാർ അറിയാവോ പഠിപ്പിക്കുന്ന വല്ലതും ഉണ്ടോ അവനെ

ആ ഹ ഹ അ ഹ അവനെ ഈയിടെ ഇച്ചിരെ പനിയൊക്കെയായിരുന്നേ അവന് ഇച്ചിരെ ആൾ ഇച്ചിരെ വീക്ക് ആണ് ഇടയ്ക്കെല്ലാം പനിയാണ് അങ്ങനെ ക്ലാസ്സ് ഇത് പിന്നെ ഇച്ചരെ മടുപ്പാന്നൊന്നു യാത്രയൊക്കെ രാവിലെ എട്ടാകുമ്പോൾ പോരുന്നതല്ലേ പിന്നെ വൈകിട്ട് നാലെ കാലാവുമ്പത്തേനും ആളപ്പടി മടുത്തു പോവും പിന്നെ വന്ന് കഴിഞ്ഞിട്ടാണേലും പഠിക്കാനൊക്കെ ഒരു എട്ട് മണി ആകുമ്പത്തേനും ഉറങ്ങും അങ്ങനൊക്കെയാണ് പക്ഷേ അങ്ങനെ ഉഴപ്പായിട്ട് ഒന്നും ഇല്ല അതെ അതെ അതെ ഉം ആ ഉണ്ട് ഉണ്ട് ഉം അ ശരിയാ ശരിയാ സാറേ ഞാൻ വിളിച്ചത് ഞാനന്ന് ക്ലാസ്സ് ടീച്ചറെ വിളിച്ചായിരുന്നു ഞങ്ങളൊരു ഞങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പം അവര് ഒരു ഫാമിലി ഒരു ടൂർ ഒരു മൂന്ന് ദിവസത്തേന് ഒന്ന് ടൂറായിരുന്നു അപ്പം അവന് ലീവ് തരാവോന്നറിയാൻ അപ്പം ടീച്ചറിനെ വിളിച്ചപ്പോൾ പറഞ്ഞു സാറിനോട് ചോദിക്കാൻ പറഞ്ഞു അതാ ഞാൻ പിന്നെ സാറിനെ വിളിച്ചത് അല്ല സർ നോട്ടൊക്കെ ഞാൻ എടുത്തു ഞാൻ പഠിപ്പിച്ചോളാം ആ അത് ശെരിയാണ് ഞാൻ പഠിപ്പിച്ചോളാം അവന്

സർ നാല് ദിവസമെന്ന് പറഞ്ഞാല് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് തൊട്ടേ ഉള്ളൂ പിന്നെ ശനിയും ഞായറും ലീവ് ആണല്ലോ പിന്നെ ഒരു തിങ്കളാഴ്ച ഒരു ക്ലാസ്സും കൂടെ പോകും നാലുദിവസം എന്ന് ഉദ്ദേശിച്ചാല് ശനിയും ഞായറും അതിനകത്തേക്ക് വരുന്നത് പിന്നെ വെള്ളിയാഴ്ച ഒരു ഹാഫ് ഡേ ലീവ് വേണം പിന്നെ ശനിയാഴ്ച ഞായറാഴ്ച ഞങ്ങള് തിങ്കളാഴ്ച രാത്രി വരും ചൊവ്വാഴ്ച തൊട്ട് സ്കൂളിൽ വിട്ടോളാം അത് ഒന്നര ദിവസത്തെ ഒരു ലീവ് ഓ അതാ സാര അല്ല അല്ല ഞാൻ മറ്റേ ഞാൻ ടീച്ചറിനോട് ഇങ്ങനെ ചോദിച്ചതാണ് അപ്പം ടീച്ചറ് പറഞ്ഞ് നോട്സ് വാട്സ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അപ്പം നമ്മള് പോകുന്ന വഴിക്കാണേലൂം എങ്ങനേലും സമയം എടുത്ത് നോട്സ് ഒക്കെ കംപ്ലീറ്റ് ആക്കി തരാം ക്ലാസിൽ വരുവാണേലുവേ ഞാന് പിന്നെ പഠിപ്പിച്ചോളാം സാറത് കൊണ്ട് അപ്പം പുറത്ത് നിന്നുള്ള ആൾക്കാരാണ് അപ്പം നമ്മുടെ ഒത്തിരി നാളുകൂടിയുള്ള ഫാമിലി ടൂറാണ് അവൻ മാത്രം ആയിട്ടങ്ങനെ മാറി നിൽക്കുന്നേന്നോർത്താണ് വിളിച്ചത് ആ ആ ശരിയാണ് ഉം ആ ഇത് ശരിയാണ് ശരിയാണ് ഉം ആ ഹ ഈ ഒരു ദിവസത്തേനെ ഉള്ളു സർ ബാക്കി ഇനി ഇങ്ങനെ ഉണ്ടാവില്ല ഓക്കേ